റൊമാൻറിക്ക് ആയിട്ടുള്ള സംഗീതമാണ് കൂടുതൽ ഇഷ്ടം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങനത്തേതിനോടാണല്ലോ താൽപ്പര്യം അപ്പോൾ അത് കേൾക്കാനും അതിൻറേതായിട്ടുള്ള ഒരിത് അതുകൊണ്ട് റൊമാൻറിക്കും പിന്നെ നല്ല നല്ല നല്ല നാടൻ പാട്ടുകൾ ഇഷ്ടമുണ്ട് നാടൻ നല്ല നാടൻ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ശാസ്ത്രീയ സംഗീതത്തിനോട് വലിയ താൽപ്പര്യം ഒന്നും ഇല്ല പിന്നെ റൊമാൻറിക്ക് മൂഡിലുള്ള നല്ല പാട്ടുകളോട് താൽപ്പര്യമുണ്ട് നാടൻ പാട്ട് ഇഷ്ടമുണ്ട് പിന്നെ യു യുഗ്മഗാനങ്ങൾ അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ നല്ല താൽപ്പര്യമുണ്ട് എല്ലാ തരത്തിലുള്ള സംഗീത എല്ലാ തരത്തിലുള്ള പാട്ടുകളും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള നല്ല നല്ല പാട്ടുകൾ നല്ല സംഗീതം നല്ലതായിട്ടുള്ള നല്ല പാട്ടുകളിനോടും നല്ല താൽപ്പര്യമുണ്ട് പിന്നെ പാരഡി ഗാനങ്ങൾ അങ്ങനെ അത് താല്പര്യമുണ്ട് നല്ല സിനിമ പാട്ടുകൾ നല്ല നല്ല സിനിമ പാട്ടുകൾ അങ്ങനെ ഉള്ള അതായത് നാ നല്ല നാടൻ പാട്ടുകൾ കോമഡി ആയിട്ടുള്ള ഗാനങ്ങൾ അതൊക്ക ഭയങ്കര താൽപ്പര്യമാണ് അതിനോടൊക്ക ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ ഭയങ്കര താൽപ്പര്യമാണ് പിന്നെ കൂടുതലും റൊമാൻറിക്ക് ഇപ്പം ഉള്ള കാലത്തുള്ള ഈ ഈ കാലഘട്ടത്തിലുള്ള റൊമാൻറിക്ക് മൂഡ് ആണല്ലോ എല്ലാവർക്കും താൽപ്പര്യം അങ്ങനെയുള്ള പാട്ടുകളിനോട് പാട്ടുകളോടും നല്ല താൽപ്പര്യമുണ്ട് കേൾക്കാൻ ഇഷ്ടമാണ് ന പാരഡി ഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കാരണമെന്ന് ചോദിച്ചാൽ കാരണം പറയാനായിട്ട് ചോദിച്ചാൽ അത് കേൾക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന നല്ല പാട്ടുകൾ നമുക്ക് ആ ഒരു സന്തോഷം തരുന്ന പാട്ടുകൾ ദുഖകരമായ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിൻറേതായിട്ടുള്ള ഒരിതല്ലേ അപ്പം സന്തോഷം തരുന്നതായിട്ടുള്ള പാട്ടുകൾ നല്ല പാരഡി ഗാനങ്ങൾ അതൊക്കെ നമ്മുടെ മനസ്സിന് നല്ല കുളിർമ്മയും നല്ല ഉന്മേഷവും അതൊക്കെ തരുന്ന പാട്ടുകൾ ആണല്ലോ അപ്പം അങ്ങനെയുള്ള പാട്ടുകളോടാണ് താൽപ്പര്യം ദുഖഗാനം കേൾക്കാൻ ആർക്കും താൽപ്പര്യമുണ്ടോ ഇല്ലല്ലോ അത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കളയുന്നു നമുക്ക് അതിൻറേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് വിഷമമുണ്ട് അതുകൊണ്ട് നല്ലനല്ല പാട്ടുകൾ കേൾക്കുന്നതിനോട് താ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാൻ നല്ല താൽപ്പര്യമാണ് പിന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് റൊമാൻറിക്ക് ആണല്ലോ അതിനോടാണല്ലോ എല്ലാവർക്കും കൂടുതൽ താൽപ്പര്യം അതിൻറേതായിട്ടുള്ള ഇത് പിന്നെ നാടൻ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനും അതിൻറേതായിട്ടുള്ളയിത് പിന്നെ പാരഡി ഗാനങ്ങൾ അതിനോട് ഭയങ്കര താൽപ്പര്യമാണ് പിന്നെ സന്തോഷകരമായിട്ടുള്ള സന്തോഷം തരുന്ന നല്ല ഉന്മേഷം തരുന്ന നല്ല പാട്ടുകൾ അതിനോടൊക്കെയാണ് താൽപ്പര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്നതാ പക്ഷേ ദുഖഗാനത്തിനോട് താൽപ്പര്യമില്ല ശോക ശോകത്തിൻറേതായിട്ടുള്ള പാട്ടുകൾ കേൾക്കും പക്ഷേ അതിനോട് വലിയ താൽപ്പര്യമില്ല മനസ്സിന് സന്തോഷവും കുളിർമ്മയും മനസ്സിനൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ചലച്ചിത്രഗാനങ്ങളും നല്ല ഒരുപാട് നല്ല ഇഷ്ടപ്പെട്ട അങ്ങനെ കുറേ ഗാനങ്ങളുണ്ട് ഭക്തിഗാനങ്ങളോട് ഇഷ്ടമാണ് പിന്നെ ഒരുപാട് അങ്ങനെ ഒരുപാട് റൊമാൻറിക്ക് ആയിട്ടുള്ള കുറേ അധികം പാട്ടുകൾ താൽപ്പര്യമുണ്ട് ഇഷ്ടമുണ്ട് അത് കേൾക്കുമ്പോൾ കേൾക്കാൻ നല്ല ഇഷ്ടമുണ്ട് പിന്നെ നമുക്ക് നല്ല സന്തോഷവും മനസ്സിനൊരു കുളിർമ്മയും നല്ല ഒരു റ് ഇത് തരുന്നൊരു സാ തരുന്നൊരു പച്ച നല്ല പാട്ടുകൾ അതിനോടൊക്കെ നല്ല താൽപ്പര്യമാണ് നല്ല ഇഷ്ടമാണ് കേൾക്കാനായിട്ട് നല്ല നല്ലൊരു മൂഡ് നമുക്ക് വരത്തക്ക അത് നല്ല നല്ല പാട്ടുകൾ അതിനോടൊക്കെ ഭയങ്കര താൽപ്പര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കും പാരഡി ഗാനങ്ങൾ ഒരുപാട് കേൾക്കും നാടൻ പാട്ടുകൾ ഒരുപാട് കേൾക്കും കോമഡി ആയിട്ട് പാടുന്ന പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ് അതൊരുപാട് കേൾക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര താൽപ്പര്യമാണ് അതൊക്കെ കേൾക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷവും മനസ്സിനൊരു താൽപ്പര്യവും പയെയൊരു കുളിർമ്മയും നല്ല ഇതെല്ലാം തരുന്ന അതൊക്കെക്കൊണ്ട് അതെല്ലാമാണ് ഭയ അതൊക്കെ അങ്ങനത്തെ പാട്ടുകൾ ആണ് ഇഷ്ടം ശോകഗാനത്തിനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എന്നാലും അത് വലിയ ഇതില്ല അങ്ങനത്തെ ഉള്ള നല്ല പാട്ടുകൾ ആണ് ഇഷ്ടം